ഹായ് സുഖം കണ്ടിട്ട് കുറേ ആയല്ലോ എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ നീ ഇപ്പോൾ എത്ര എത്ര സെമെസ്റ്ററാണ് സെക്കൻ്റോ ആ തേർഡ് തേർഡ് ഞാൻ ദേ ഡിപ്ലോമ കഴിഞ്ഞു ജോലി അന്യോഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഒറ്റപ്പാലം കോംപാക്ട്സ് പറയും ഞാൻ ഡാറ്റ ഫീസ് ഉയ്യോ ആദ്യം ഒരു ഏഴായിരം കൊടുത്തു പിന്നെ ഇപ്പോഴൊരു മൂവ്വായിരം കൂടെ കൊടുത്തു മൊത്തം ഒരു പതിനൊന്നായിരം ആഹ് അത്ര വന്നു ഡെയ്ലി അല്ല ആഴ്ച്ചയിൽ ഒരു മൂന്നൂ ദിവസം ക്ലാസ് ഉണ്ടാവും ക്ലാസ് ഒരു മൂന്ന് മണിക്കൂർ വരും ഉച്ച രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ ഒരു ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്നിട്ട് കോളേജൊക്കെ എന്ത് പറയണു ആണോ കോളേജ് നല്ല പുരോഗമിച്ചുവെന്ന് ഞാൻ കേട്ടു എക്സാമും പ്രോജെക്ട് ഒക്കെയോ എക്സാമൊക്കെ എളുപ്പമുണ്ടോ സപ്ലീയുണ്ടോ ആണോ ആണോ എന്നിട്ടെന്താണ് ഡീ കഴിഞ്ഞിട്ട് പ്ലാന് പി ജി എടുക്കുന്നുണ്ടോ ആണോ ഓക്കേ പ്രോജെക്റ്റെന്താണ് നിങ്ങൾ നോക്കണ് ആണോ ഞാൻ പ്രൊജക്റ്റ് ചെയ്തത് കിംഗ് സൈൻ ആൻഡ് ഒറ്റപ്പാലത്ത് ആണ് ഞാൻ പ്രോജെക്ടറ്റെയ്തത് പ്രൊജക്റ്റ് ചെയ്തത് ആ ഒരു പൈസ അത്രയൊന്നും വരില്ല എന്നാലും വരും ദേ അന്വേഷിച്ചിട്ട് നോക്കി ചെയ്താൽ മതി ഞങ്ങൾ ഓൺലൈൻ വഴി ഗ്യാസ് ബുക്ക് ചെയ്യണ ഒരിതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് ആഹ് ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു നിങ്ങൾ ആഹ് നിങ്ങളന്വേഷിച്ചിട്ട് നോക്കി ചെയ്താൽ മതി ഇല്ല ആ പഴയ പ്രൊജക്ടുണ്ട് പക്ഷേ അതുതന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പുതിയതായിട്ടെന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ നമ്പർ ഞാൻ ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് അയക്കാം ശരിയെന്നാൽ ഇപ്പോഴോ അയ്യോ തിരയേണ്ടി വരും ഞാൻ പിന്നെ അന്യോഷിച്ചിട്ട് പറഞ്ഞാൽ മതിയോ ആ ഉണ്ട് ഉണ്ട് തോന്നുന്നു ഉണ്ടാവും ആ ശരി ആ മുപ്പത്തൊന്ന് നാൽപ്പത്തേഴ് അമ്പത്തെട്ട് നാൽപ്പത്തിമൂന്ന് ഇരുപതെട്ട് ആ ശരി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ആ ഫ്രണ്ട്സ് അവർ ഇല്ല കുറേ പേരായിട്ട് കോണ്ടാക്ട്സൊന്നും ഇല്ല കുറച്ച് പേരോ മറ്റൊള്ളൂ അവർ വർക്കൊക്കെ ചെയ്യുകയാണ് കുറച്ച് പേര് പഠിക്കുന്നു ആഹ് ഗെറ്റുഗെതറൊക്കെ ഞങ്ങളീയിടയ്ക്ക് വച്ചേയുള്ളൂ പഴയ ടീച്ചർമാരൊക്കെ ഉണ്ടവിടെ ഷാഫില മിസ്സുണ്ടോ ആണോ ശരിയെന്നാൽ പിന്നെ കാണാം ശരി